ഹലോ ഫർസ റെസ്റ്റോറന്റ് അല്ലേ ആ ഞാൻ അവിടെ കുറച്ച് മുമ്പൊരു ഇന്നലെ ഭഷണം ഓർഡർ ചെയ്തിരുന്നു ബിരിയാണി പത്ത് ബിരിയാണി ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ വീട്ടിൾ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഗസ്റ്റൊക്കെ വന്നപ്പോഴൊരു ബിരിയാണി ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ ആ ബിരിയാണി നമുക്ക് വളരേ ഇഷ്ടപ്പെട്ടില്ല കഷ്ണമൊക്കെ ചിക്കനൊക്കെ മോശമായിരുന്നു പിന്നെ ഭക്ഷണം ഞങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നിങ്ങളെന്താണ് അങ്ങനെ ചെയ്തത് ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ സ്ഥിരമായിട്ട് അവിടെ നിന്ന് സാധനം വാങ്ങുന്ന ആൾക്കാരാണ് ഇത് വളരെ മോശമായി നിങ്ങളെ പെരുമാറ്റം എന്താ അതിൻ്റെ കാരണമെന്താണ് നിങ്ങൾ തീരെ ശ്രദ്ധിക്കണില്ല ഭക്ഷണം കൊടുക്കുന്നതിലൊന്നും എന്തായാലും ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞങ്ങളിതിന് പരാതിപ്പെട്ട് വേറെ ആക്ഷനൊക്കെ എടുക്കാൻ ശ്രമിക്കും അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് മേലിലിങ്ങനെ ഒന്നും ചെയ്യരുത് നല്ല രീതിയിലുള്ള ഭക്ഷണം എത്തിച്ചു തരാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പ്രശ്നമാണ്